ഇപ്പോൾ മതം അങ്ങനെ സ്കൂളുകളിൽ പഠിപ്പിക്ക്ണില്ല മതത്തെക്കുറിച്ച് പിടിപ്പിക്ക്ണൂന്ന് വെച്ചാല് അങ്ങനെ ഇപ്പോൾ ഞാൻ ഹിന്ദു മതത്തിൽ പെട്ടൊരാളാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ പഠിപ്പിക്കു പക്ഷെ ചില പാഠ്യഭാഗങ്ങളില് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചിട്ടും വേദങ്ങളെക്കുറിച്ചിട്ടും കുറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിൽ വരുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആ അതായത് ഒരു ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ ആ എന്നാൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാനമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കു വീടുകളിലും പിന്നെ അങ്ങനെയൊക്കെപ്പെടും അല്ലാണ്ട് നമുക്ക് സ്കൂളുകളിൽ പാഠ്യപദ്ധതിയായിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അതില് വരുന്നില്ല പിന്നെ നമ്മുടെ ജീവിത ശൈലികളെക്കുറിച്ച് നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടു നമുക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കു പാഠ്യപദ്ധതിയിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മതം നമ്മുടെ ജീവിത ശൈലീനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ എങ്ങനെയാണ് നോക്കുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് സമൂഹത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ നമ്മുടെ മതം നമ്മുടെ സംസ്കാരത്തെ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു മതത്തിന് ആ ഒരു സംസ്കാരം നമുക്ക് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു മതം ഒരു മനുഷ്യനേയും വളരെ നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ വേറെ ആളെ സഹായിക്കുക സ്നേഹിക്കുക അങ്ങനത്തെ കാര്യങ്ങള് ആണ് കൂടുതലായിട്ട് എല്ലാ മതങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു ദിവസം ഉറക്കം എണീക്കുന്നവരുണ്ട് ഉറങ്ങുന്നവര് നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മൾ അതില് ബന്ധപ്പെട്ടിട്ടുണ്ട്